ആ അതെ അതെ അതെ അതെ അതെയതെ പറയൂ

ഓക്കെ ഓക്കെ ഓക്കെ ആ തീർച്ചയായിട്ടും ഓക്കെ അതെ ആ താങ്കള് തീര്ച്ചയായിട്ടും തീര്ച്ചയായിട്ടും ശരിയായ സമയത്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോള് നമ്മുടെ കസ്റ്റഡിയില് ഏതാണ്ട് നാലോ അഞ്ചോ തരത്തിലുള്ള പ്ലോട്ടുകള് അവൈലബിളാണ് താങ്കള്ക്ക് ടൗണില്തന്നെ താങ്കള്ക്ക് ആ ആവശ്യപ്പെട്ട രീതിയില് നമുക്ക് തയ്യാറാക്കി തരാന് സാധിക്കും ആ സാധിക്കും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയായിരിക്കും താങ്കളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഉദ്ദേശം ഉദ്ദേശം എന്തായാലും അഞ്ചൊന്നുമ്മല്ല അഞ്ചിനും ആറിനും എട്ടുവരെയൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് എങ്കിലും താങ്കൾക്ക് നമുക്ക് മാക്സിമം കുറച്ചു കിട്ടുന്ന രീതിയില്തന്നെ നമുക്കത് ചെയ്യാന് സാധിക്കും ഇപ്പോള് നമ്മുടെ കൈയില് അവൈലബിളായിട്ടുള്ളത് ടൗണില് തന്നെ സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പത്ത് സെൻ്റ് സ്ഥലമാണുള്ളത് അവിടെ ഒരു ഇത് ആ ഇവിടെ സ്കൂളും പള്ളികളും എല്ലാം ഉള്ളയൊരു സ്ഥലം തന്നെയാണ് പള്ളി പള്ളി പഴവങ്ങാടി പള്ളിക്കടുത്തു തന്നെയാണ് ഈ സ്ഥലമുള്ളത് ആ ഓക്കെ അപ്പോള് താങ്കള്ക്ക് താങ്കള്ക്ക് ഏതെങ്കിലും ദിവസം വൈകുന്നേരങ്ങളിൽ താങ്കൾക്ക് താങ്കളുടെ സൗകര്യം കൂടി അനുസരിച്ച് നമുക്കതു പോയി കാണുകയും കൂടുതൽ വിവരങ്ങൾ അവിടെ വെച്ച് നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്യാം താങ്കൾക്ക് തീർച്ചയായും ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്നു തന്നെയാണ് എൻ്റെ ഒരു ഇത് പ്രതീക്ഷ

അഡ്വാന്സ് അഡ്വാന്സിൻ്റെ അഡ്വാന്സ് കൊടുക്കേണ്ടിവരും തീര്ച്ചയായിട്ടും താങ്കള്ക്കത് ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അഡ്വാന്സ് കൂടി കരുതി കൊണ്ടുവരുന്നതായിരിക്കും താങ്കള്ക്ക് നല്ലത് ആ കാരണം നമ്മള് കാലങ്ങളായി ഈ ജോലി ചെയ്യുന്നൊരാളാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളിത് പറയുന്നത് ആ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതെയതെ അപ്പോള് ആ പറയൂ ആ ആ തീര്ച്ചയായും സാര് അതിനും ഞങ്ങള്ക്ക് സൗകര്യങ്ങള് ഉണ്ടായിരിക്കുന്നതാണ് താങ്കളുടെ ഇഷ്ടാനുസരണം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വീട് താങ്കള്ക്ക് നിര്മ്മിക്കുന്നതിനുള്ള സഹായങ്ങള് നമുക്ക് ചെയ്തുതരും നമുക്ക് എന്ജിനീയറിങ് ആര്ക്കിടെക്റ്റ് പോലുള്ള സൗകര്യങ്ങള് നമുക്കുണ്ട് താങ്കള്ക്ക് അവരെയും ബന്ധപ്പെടുത്തി തരുന്നതായിരിക്കും താങ്കളുടെ ഇഷ്ടത്തിനും താങ്കളുടെ ഭാവനയ്ക്കും അനുസരിച്ചുള്ള ഒരു വീട് നമുക്ക് അതും തയ്യാറാക്കി എടുക്കാന് സാധിക്കുന്നതായിരിക്കും താങ്കള്ക്ക് എന്നായിരിക്കും ഇത് വേണ്ടി കാണാന് കാണാന് സൗകര്യമുണ്ടാവുക അടുത്തയാഴ്ച ഓക്കെ ഓക്കെ യാ ആ തീര്ച്ചയായും അത് നമുക്ക് അവിടെ നേരില് കണ്ട് സംസാരിക്കുമ്പോള് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയുള്ളൂ താങ്കളുടെ അര്ജന്സി ആണല്ലോ താങ്കള്ക്ക് ഇപ്പോള് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് വേഗത്തില്തന്നെ അതെല്ലാം നടത്തിയെടുക്കാന് നമുക്ക് സാധിക്കും ഒരാഴ്ചയ്ക്ക് അല്ലെങ്കില് രണ്ടാഴ്ചക്കുള്ളില് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാന് സാധിക്കുമെന്നാണ് ഞാന് വിശ്വസിക്കുന്നത്

ആ ആ ആ ആ എല്ലാം എല്ലാം നമുക്ക് അവൈലബിളായി തന്നെയാണ് ഇരിക്കുന്നത് താങ്കളുടെ ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്കുടന് തന്നെ അതിൻ്റെ രജിസ്ട്രേഷന് നടത്തിയിട്ട് നടത്താന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ നമുക്ക് സാധിച്ചെടുക്കാന് സാധിക്കും ആ ആ അപ്പോള് താങ്കള്ക്ക് ആ അപ്പോള് താങ്കള്ക്കത് കൂടുതല് സമയം ആവശ്യമുണ്ടെങ്കിലത് പറഞ്ഞാല്മതി നമുക്ക് അതിനുമുള്ള സൗകര്യങ്ങള് ഏര്പ്പെടുത്തി തരണം അതുമാത്രമല്ല താങ്കള്ക്കിനി ലോണ് ആവശ്യമുണ്ടെങ്കില് അതിനും നമുക്ക് സൗകര്യങ്ങള് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഓക്കെ അത് കാണാം കാണാം ഓക്കെ താങ്ക് യു ഓക്കെ